വയനാട് ജില്ലയിലത്തെ ഗതാഗത സംവിധാനങ്ങൾ വെച്ചാൽ മെയിൻ ആയിട്ട് റോഡുകൾ അങ്ങനെയുള്ളതൊക്കെയേ ഉള്ളു നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റയിൽവേ ഇല്ല അതായത് നമുക്കെന്തെങ്കിലും ട്രെയിനിൽ അങ്ങനെ എന്തെങ്കിലും പോവണമെങ്കിൽ നമുക്ക് വയനാടിന് പുറത്തുള്ള ജില്ലകളിലേക്ക് പോവണം പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുഗതാഗതമായിട്ട് ഇപ്പോൾ വിമാനത്താവളങ്ങളും ഇല്ല നമുക്ക് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ബസ് സർവീസ് ആ ഒരു ഇതിലേ ഒതുങ്ങിനിൽക്കൂ പിന്നെ നമ്മുടെ സ്വകാര്യ വാഹനങ്ങൾ അങ്ങനെയാണ് നമുക്ക് കൂടുതലുള്ളത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോ നമ്മൾ ഇപ്പോൾ പൊ പൊതുവേ വിമാനത്താവളം കണ്ണുർ അന്താരാഷ്ട്ര വിമാനത്താവളം പിന്നെ അതേപോലെ കോഴിക്കോട് എറണാകുളം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ടാണ് നമ്മൾ വിമാനത്തിലൊക്കെ പോവണമെങ്കിൽ പോവുക എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് ഒന്നും അതായത് അതിൻറെ പൈസ അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിൻ ടിക്കറ്റിൻ്റെ പൈ ട്രെയിൻ ടിക്കറ്റ് ആണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ വിമാനത്തിലൊക്കെ പോവണമെങ്കിൽ നമുക്ക് അത്യാവശ്യം സാധാരണക്കാർക്ക് ഒന്നും അങ്ങനെ പോകാനുള്ള ഒരു അതായത് ബഡ്ജറ്റിന് അനുസരിച്ച് നമുക്ക് ഇല്ല പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം വരും പിന്നേ എന്നാൽ അങ്ങനത്തെ ഒരു ബന്ധു വെല്ലുവിളികളൊക്കെ ഉണ്ട് പിന്നെ റോഡുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോഡ് വളരെ മോശമാണ് അത് കുണ്ടും കുഴികളും അങ്ങനെ പല പ്രശ്നങ്ങളുമാണ് അതുകൊണ്ടുതന്നെ കുറേ ആക്സിഡന്റുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നടക്കും നമ്മുടെ ഗതാഗതം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്